എനിക്കിഷ്ടം ഒറ്റയ്ക്ക് പോകാൻ കാരണം ജീവിതത്തിലിപ്പോൾ ഒറ്റയ്ക്ക് പോവുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങള് പഠിക്കാനും കുറേ കാര്യങ്ങള് ചെയ്യാനും ഒക്കെ മനസ്സിലാവും അുതുകൊണ്ട് ജീവിതത്തിലെപ്പോഴും ഒറ്റയ്ക്കാണ് പക്ഷെ കൂട്ടമായിട്ട് പോയിക്കഴിഞ്ഞാൽ നമ്മളവരോടൊപ്പം കൂടുതുല് അടുക്കുവാനും പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കാനും അന്നേരത്തിനെ തരണം ചെയ്യാനും പറ്റും അതാണ് എപ്പോഴും നല്ലത് കാരണം ചില സമയത്ത് ഒറ്റയ്ക്ക് പോവുന്നതും ചില സമയത്ത് കൂട്ടമായി പോവുന്നത് ആണെങ്കിലും നല്ലത്